നമ്മുടെ ഗ്രാമങ്ങളിലെ മോശമായ ഒരു സേവനങ്ങൾ എന്നു പറയുമ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ നമുക്ക് നല്ലൊരു ചികിത്സ ഇല്ലാത്ത ഒരു ഏരിയ ആണിവിടെ അതായത് എന്തെങ്കിലും വലിയ ഒരു അർജന്റ് അവശ്യം വന്നാൽ പല ഹോസ്പിറ്റലും കയറിയിട്ട് അവസാനം വേറൊരു ദൂരെ ഇതിലോട്ട് അവർ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യണത് ഈ ഭാഗങ്ങളിൽ അങ്ങനൊരു നല്ലൊരു പൊതുസേവനി ഹോസ്പിറ്റലോ ഒന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആശുപത്രിയിൽ പോയിക്കഴിഞ്ഞാലും അവർ പുറത്തോട്ട് മരുന്നെഴുതിത്തരുന്നൂ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോയാൽ അവർ അവിടെ കുറേ മരുന്നുണ്ടാവില്ല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു നിന്ന് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെത്തന്നെ കുറ്റകൃത്യങ്ങൾ ആണെങ്കിൽ അതു കുറവാണിവിടെ അധികം വരുന്നില്ല നല്ലൊരു നിയമപാലകന്മാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്ത് ഒരു കുഴപ്പമിലാണ്ട് ചെയ്തു പോകുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കുഴപ്പമില്ല എന്നാലും നല്ലരീതിയിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ മുൻകാലം ചരിത്രം നോക്കിനോക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലെ നല്ല രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയം മുൻ പോകുന്നത് ഒരു വലിയൊരു കുറ്റകൃത്യമായിട്ട് ഇവിടെ രാഷ്ട്രീയം പോകുന്നില്ല നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്